ഞാനിപ്പോൾ പ്രശസ്തമായിട്ടുള്ള നൃത്തങ്ങൾന്നക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും കാണുന്നത് യുട്യൂബ് ചാനലുകളിലാണ് അതിൽ മോഹിനിയാട്ടം കുച്ചിപ്പുടി അങ്ങനത്തെ ഭരതനാട്യം അങ്ങനത്തെ ഡാൻസികൾ കൂടുതലായിട്ടും കാണുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ നമ്മളിപ്പം അതിൽ കാണിക്കുന്ന ഓരോ കൈകൊണ്ടുള്ള ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലൊരു ഭംഗിയായിട്ടുള്ളതാണ് പിന്നെ അവരുടെ എന്ത്പറയ മുഖത്തൊക്കെ ഉള്ള മേക്കപ്പ്കൾ കാര്യങ്ങൾ ഒരു നാടൻ ശൈലിലുള്ള വസ്ത്രധാരണം ഇതൊക്കെ കാണാൻ നല്ല രസമാണ് അതൊന്നും ഇപ്പോഴത്തെ വെസ്റ്റേൺ ഡാൻസിനൊന്നും കിട്ടാത്തൊരു അവസ്ഥയാണ് ഇള്ളത് കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാൻസികളിൽ കൂടുതലായിട്ടും പഴയ രീതിയിലുള്ള നമുക്ക് എന്താ പറയാ മലയാള ഭാഷയെ തനതായിട്ട് ചേർത്ത് വെച്ചേക്കുന്ന പാട്ടുകളാണ് അതിനകത്ത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കുറെ പേർ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉള്ളത് അപ്പോൾ നല്ല ലൈക്ക് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാറുണ്ട് പിന്നെ വെസ്റ്റേൺ ഡാൻസിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യമില്ല ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ടാണ് കൂടുതലായിട്ടും ആൾക്കാർ ഡാൻസ് കളിക്കാറ്